പണ്ടൊക്കെ മത്സ്യബന്ധനം നടത്തുമ്പോൾ പണ്ടൊക്കെ മത്സ്യബന്ധനം നടത്തുമ്പോൾ ചുഴലി കാറ്റുകളൊക്കെ കാറ്റും കോളുവൊക്കെ ഉണ്ടാകുമ്പോൾ വള്ളം മറിഞ്ഞപോലെയുള്ള അവസ്ഥയിലാകുകയും അതിനെ ധീരമായി നേരിടുകയും ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് പലപ്പോഴും അപ്പോഴൊക്കെ കാലാവസ്ഥ മോശം വന്നതുകൊണ്ടും വലകളൊക്കെ കീറിപ്പോയിട്ടും ഒക്കെയുണ്ട് പിന്നെ കാലാവസ്ഥയ്ക്ക് വിപരീതമായിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് പല മീനില്ലാത്ത അവസ്ഥ നിരാശനായ നിരാശരായ പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഇപ്പഴത്തെ സാഹചര്യങ്ങള് ഇതെല്ലാം തരണം ചെയ്യാനുള്ള ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു പണ്ടൊക്കെ ആണെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടു പിടിച്ച സാഹചര്യങ്ങളായിരുന്നു പല പലകാലം പലപ്പോഴും ഞങ്ങൾക്ക് ദുരിതങ്ങൾ നേരിടാറുണ്ടായിരുന്നു അന്നത്തെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു കാലാവസ്ഥയ്ക്കും വളരെ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്നു വിഷമകരമായ പല സംഭവങ്ങളും ജീവിതത്തിലുണ്ടായിട്ടുണ്ട് പലപ്പോഴും ഞങ്ങൾക്ക് പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് വള്ളം മറിഞ്ഞു മറിയുകയും അതിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് നീന്തി കരയ്ക്കടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്